ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് സ്കൂളൊക്കെ തുറന്നില്ലേ മക്കൽക്ക് ബാഗ് കുട ബുക്ക് ൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് ആണോ എന്നാൽപ്പിന്നെ പച്ചക്കറികൾക്കൊക്കെ എത്രയാണ് വില ആ ഞങ്ങൾക്ക് ഒരു ഹോട്ടല് നടത്താൻ ആയിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം എന്നാൽ ഞങ്ങൾക്ക് പിന്നെ കടയിലേയ്ക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങളിപ്പം ലിസ്റ്റ് ഒരാളുടെ കയ്യിൽ കൊടുത്ത് വിടാം നിങ്ങൾ ഇവിടെ നിന്ന് ഈ കൊണ്ട് ഇറക്കിത്തരുമോ ജസ്റ്റ് കടം തരുമോ ഞങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരാം ഇപ്പോൾ പൈസയില്ല എന്നാൽ ഞങ്ങൾ കട തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ട് കടത്തിലാണ് ഉള്ളത് എന്നാൽ ഞങ്ങൾ ഈ ആ കടയിലേയ്ക്ക് ഞങ്ങൾ വന്നിട്ടെല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാ മാസവും അവിടെ നിന്ന് സാധനം എടുത്തുകൊളളാം ആയിക്കോട്ടെ ശരി നാളെ വരാം കേട്ടോ